ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ബൈക്കിംഗ അനുഭവം എന്നു പറയാനാണെങ്കിൽ ഞാൻ സുസുക്കിൻ്റെ ബൈക്കിൻ്റെ ഷോറൂമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ബൈക്ക് ഓൾമോസ്റ്റ് വയനാട് അവിടെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തു കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്നൊരു ബൈക്ക് ഡെലിവറി വന്നിരുന്നു അപ്പം ആ ബൈക്ക് കോട്ടയം വരെ എത്തിച്ചു കൊടുക്കാനായിരുന്നു വയനാട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് എത്തിക്കാനായിരുന്നു എനിക്ക് അതായത് അപ്പം ഞാൻ ഈ ബൈക്കുമായിട്ട് പോയ സമയത്ത് ഏകദേശം വയനാട്ടിൽ നിന്ന് ഞാൻ എറണാകുളം കഴിയുന്ന എറണാകുളം ബോർഡർ വരെ ഞാൻ വണ്ടി കൊണ്ടു പോയി അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് നൈറ്റ് ഒരു മൂന്ന് മണി മൂന്നേ മുക്കാൽ ആ ഒരു സമയമായിരുന്നു അപ്പ ആ സമയത്ത് ഞാൻ ബൈക്ക് ഓടിച്ചു പോന്നു ബട്ട് ഉറക്കമൊന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ബട്ട് പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയി നേരെ പോയിട്ട് ഒരു മരത്തിൽ ഇടിച്ച് മുഖത്ത് ഒരു ആറ് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു ആരും ബൈക്കിങ് ഇതേവരെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് അത്രയും ലോങ്ങ് ബൈക്കിന് പോയിട്ട് ആദ്യമായിട്ട് പറ്റിയ ഒരു അപകടമായിരുന്നു അത് അപ്പോൾ ആ ഒരു ഇൻസിഡൻറ് എന്താണ് പറയുക ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്